ഞങ്ങളുടെ നാട്ടിൽ കുറേ ഉത്സവങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നുവെച്ചാൽ മൂന്ന് മതങ്ങളുടെയും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാ മതങ്ങളുടെ ഉത്സവങ്ങളുമൊക്കെ ഉണ്ടാകാറുണ്ട് എല്ലാവരും വളരെയേറെ മതസൗഹാർദത്തോടെയാണ് ഇതൊക്കെ ആഘോഷിക്കാറ് അതിൽ പ്രധാനമായിട്ടും എനിക്ക് ഓർമ്മ വരുന്നത് ഒരമ്പലത്തിലെ ആഘോഷമാണ് പത്തു പന്ത്രണ്ട് ദിവസം നീണ്ടുനിൽക്കുന്നൊരു പൂരം ആ ഉത്സവമൊക്കെ ആണ് ഉണ്ടാകുക ഓരോ ദിവസം ഓരോ ചടങ്ങുകളൊക്കെ ഒക്കെയാണ് ഉണ്ടാകുക നല്ല രസമുള്ള ചടങ്ങുകളാണ് പിന്നെ ഇപ്പോൾ ഇപ്പം കളിപ്പാട്ടങ്ങളും പിന്നെ കുട്ടികൾക്കു വേണ്ട കളിപ്പാട്ടങ്ങൾ വള മാല ഡ്രെസ്സുകൾ ഭഷണങ്ങൾ ഒക്കെ ഉണ്ടാകാറുണ്ട് പിന്നെ ആൾക്കാരൊക്കെ വളരെയേറെ കുറേ ദൂരത്തു നിന്ന് ആൾക്കാരൊക്കെ വരുന്ന വരാറുണ്ട് ഇതുവഴി നമുക്ക് നമ്മളുടെ നാട്ടിലെ കുറിച്ചിട്ട് നാട്ടുകാരെ കുറിച്ചിട്ടൊക്കെ ഭയങ്കര ഒരു ഒരു ആൾക്കാരെക്കുറിച്ചൊക്കെ അറിയാനും പിന്നെ നാട്ടുകാരെ കുറിച്ച് കൂടുതൽ അടുത്തറിയാനും നമ്മളെ നാടിൻ്റെ സംസ്കാരത്തെകുറിച്ച് അറിയാനും എല്ലാവരെ കുറിച്ച് അറിയാനൊക്കെ നമുക്ക് പറ്റും പിന്നെ വേറെ എന്താ ഉണ്ടാകുന്നെന്നു വെച്ചാൽ പിന്നെ ഈ ഈ പൂരം ആഘോഷിക്കാൻവേണ്ടി മാത്രം തന്നെ കുറേ ദൂരത്ത് ദൂര നാട്ടിൽ നിന്ന് കുറേ ആൾക്കാരൊക്കെ വരാറുണ്ട് എന്നു വെച്ചാൽ എന്നു വെച്ചാൽ ലീവ് എടുത്തു തന്നെ ആൾക്കാരൊക്കെ വരാറുണ്ട് ഈ പൂരം ആഘോഷിക്കാൻ വേണ്ടി മാത്രം എന്നു വെച്ചാൽ നമ്മൾ പുറത്തുപോയ നാട്ടിൽ നിന്ന് പുറത്തുപോയ ആൾക്കാരൊക്കെ ലീവ് എടുക്കാൻ വേണ്ടിയിട്ട് ലീവ് എടുത്തിട്ട് പൂരം ആഘോഷിക്കാൻ വേണ്ടി മാത്രമാണ് അപ്പം നമുക്ക് മനസ്സിലാകുമല്ലോ ഈ പൂരത്തിൻ്റെ ഒക്കെ ഒരു അതിൻ്റെ ഒരു ഇഷ്ടം ഒക്കെ ആൾക്കാർ കുറേ പിന്നെ പാട്ടുകൾ എന്താ പറയുക പാട്ടുകളും പിന്നെ ചെണ്ടകളും ചെണ്ട വെച്ചിട്ടുള്ള കുറേ പഞ്ചവാദ്യം തായമ്പക അങ്ങനത്തെ കുറേ ചടങ്ങുകളൊക്കെ ഉണ്ടാകാറുണ്ട് പിന്നെ പിന്നെ ആൾക്കാർ എല്ലാവരും ഭയങ്കര ഒരുമയോടെ സൗഹൃദത്തോടു കൂടിയിട്ടാണ് ഇതെല്ലാം ആഘോഷിക്കാറ് ആൾക്കാർക്ക് ഇതൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു രസകരമായ ഒരു സംഭവമാണ് ഇതുവഴി നമുക്ക് നമ്മുടെ നാടിനെക്കുറിച്ചിട്ടും നാട്ടുകാരെക്കുറിച്ചിട്ടൊക്കെ നല്ല രീതിയിൽ അറിയാൻ പറ്റും പിന്നെ നമുക്ക് നമ്മൾ നമുക്ക് ഓരോ നാട്ടിലും ചടങ്ങുകൾ വ്യത്യാസം ആണല്ലോ ഇപ്പോൾ പിന്നവിടെ പിന്നെ വേറെ മതങ്ങളുടെ ആഘോഷങ്ങളിലും എല്ലാ മതക്കാരും വളരെ സന്തോഷത്തോടെ ആഘോഷിക്കാറുണ്ട് എന്നു വെച്ചാൽ ഒരിക്കലും വേറെ മതമാണല്ലോ എന്നു വെച്ചിട്ട് നീ അങ്ങോട്ടു പോകണ്ട എന്നൊന്നും ആരും വിചാരിക്കാറില്ല എല്ലാവരും അത് ഭയങ്കര സന്തോഷത്തോടെ ആഘോഷിക്കും പിന്നെ എന്തെങ്കിലും ഒക്കെ പ്രോഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കുക പുതിയ ഡ്രസ്സ് വാങ്ങിക്കുക പുതിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കുക മൊത്തത്തിൽ നമ്മളുടെ വീടിലും വീടുകളിലും ഒക്കെ ഒരു സന്തോഷമാണ് പിന്നെ ഈ ആനയൊക്കെ നെറ്റിപട്ടമൊക്കെ കെട്ടിയിട്ട് വരും